ഞാൻ കൃഷി തുടങ്ങാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം കൃഷിഭവനിൽ ചെന്ന് അവരുടെ ഓരോ അഡ്വൈസ് ക്ലാസ്സുകൾ പിന്നെ അവരായിട്ട് അവർ നമുക്ക് കുറേ വിത്തുകൾ അങ്ങനെ ചെടികളൊക്കെ തരും അതുകൊണ്ട് നട്ടും അതിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള കായ്കളും നമുക്ക് തിന്നാനുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇതാക്കി ആണ് ഞാൻ അത് ഉണ്ടാക്കിയത് പിന്നെ എന്ന് പറയുമ്പോൾ അടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ ഈ കൃഷി ചെയ്യുന്നവർ അതുപോലെ നെൽ കൃഷി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരും ഉണ്ടാവില്ലേ അവരുടെ അടുത്ത് ചെന്ന് ഇത് എങ്ങനെ ചെയ്യേണ്ടത് അതിൽ എന്തൊക്കെ വളം ഇടണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ച് അതിൻ്റെ ഓരോരോ കാര്യങ്ങളും എപ്പോളാണ് ഇത് വിത്തിടേണ്ടത് എപ്പോളാണ് ഇത് കൊയ്യേണ്ടത് അങ്ങനെയുള്ള പറിക്കേണ്ടത് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും പിന്നെ എന്തൊക്കെ വിത്തിട്ടാൽ എന്തൊക്കെ ഇത് കിട്ടും നമ്മൾ ഈ നാടിന് അനുസരിച്ച് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള എന്തൊക്കെ ചെടികളാണ് ഇവിടെ വളരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കൃഷി ഭവനിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുന്ന് നമുക്ക് കുറെ ക്ലാസ്സ് എടുത്തു തരും അതിലൂടെയൊക്കെയാണ് ഇങ്ങനെ പഠിച്ചത് അവരുടെ പലതരത്തിലുള്ള ക്ലാസ്സ് ഉണ്ടാകും പിന്നെ അവരുടെ ബുക്ക് ഉണ്ട് ആ ബുക്കിലൊക്കെ നമ്മൾ ഇങ്ങനെ വായിച്ചിരിക്കും നമുക്കതിൻ്റെ അകത്ത് മനസ്സിലാകും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതാക്കിന്നുള്ളത് അതിലൂടെയാണ് ഞാൻ കൃഷി പഠിച്ചത്